ഇപ്പം നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നമുക്ക് കൂടിച്ചേർക്കാനും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങക്കൊക്കെ നടക്കുന്നതാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗാനമേള നടന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഒരാളായിട്ട് ഡാൻസ് കളിക്കില്ല നമ്മൾ എല്ലാവരും കൂടിയാണ് ഡാൻസ് കളിക്കുക ഇപ്പോൾ നല്ല രീതിയിൽ ഉള്ള മുന്നേറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഗാനമേള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളിപ്പോൾ ഞാനിപ്പോൾ ഒറ്റക്കാണ് പോകുന്നത് എങ്കിൽ ഞാൻ എന്തായാലും ഒരിക്കലും ഒറ്റക്ക് ഡാൻസ് കളിക്കാൻ കളിക്കില്ല കാരണം എൻ്റെ കൂടെ ആരെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നാൽ മാത്രമേ നമുക്ക് കളി ഡാൻസ് കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒക്കെ നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല അപ്പം എന്താ പറയുക ഇപ്പം എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിനിടയിൽ ഒന്ന് എന്താ പറയുക ആർത്തുല്ലസിച്ച് ഡാൻസ് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്നത് ആ ടൈമിലാണ് അപ്പോൾ നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കാഴ്ച്ച വേണ്ടി കാഴ്ച വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നല്ലൊരു അപ അപബോധത്തിലേക്ക് നമുക്ക് എത്തിക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒക്കെ നല്ലതായിട്ടാണ് എനിക്കും തോന്നുന്നത് ഇപ്പം നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കലയാണ് നമുക്ക് അത് എന്തുണ്ടെങ്കിലും നമുക്ക് അത് ചെയ്യാനോ ചെയ്യോ എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു അപബോധത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നുമുണ്ട്